എനിക്ക് ഞാൻ ക്രിസ്ത്യൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്നു പറയുന്നത് വിശദീകരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ച നിൻ്റെ കുടുംബത്തെ ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തുകൊണ്ടാണെന്നു പറഞ്ഞാൽ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ചും ഒക്കെയുള്ള ഒത്തിരി ഒത്തിരി വരികൾ അതിനകത്തുണ്ട് അർത്ഥമായിട്ടുള്ളൊരു വരികളാണ് അപ്പം അത് മക്കളെ ശിക്ഷണം നൽകി വളർത്തുന്നതിനെക്കുറിച്ചും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ഒത്തിരി ഒത്തിരി വരികൾ അതിനകത്തുണ്ട് ഞാൻ അതുകാരണം ആ പാട്ടിനെ ഞാൻ അതിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെതന്നെ പിന്നെ തന്നാലും നാഥാ ആത്മാവിനെ ഈശോയോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടും അപ്പം ആ വരികളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ കുളിർമയണിക്കുന്ന വരികളാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബലം നൽകുന്ന ഒരു ഗാനങ്ങളാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളാണ് ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും തന്നാലും നാഥാ ആത്മാവിനെ എന്നുള്ള ആ ഗാനം വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വിശുദ്ധ ബലികളിൽ കടന്നു വരുമ്പോഴത്തേക്കാണെങ്കിലും പിന്നെ ദേവാലയങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ഗാനങ്ങൾ വിശുദ്ദ കുർബ്ബാനയിൽ അപ്പോൾ ആ ഗാനങ്ങൾ നമുക്ക് ഒത്തിരി